ഹലോ ഞാൻ വിളിക്കുന്നത് കിടങ്ങറായിൽ നിന്നാണ് ഇത് നമ്മുടെ കുരിശു മൂട്ടിലുള്ള കെ എഫ് സിയുടെ സ്റ്റോർ അല്ലേ ഞാൻ നിങ്ങളുടെ ഇന്നത്തെ ഡിസ്കൗണ്ട് ഓഫറൊക്കെ കണ്ടിട്ട് ഒരു പാക്കറ്റ് ഓഡർ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് രണ്ടു മുപ്പതിനാണ് ഡെലിവറി പറഞ്ഞിരുന്നത് ഇതുവരെ ആയിട്ടും എനിക്ക് സാധനം കിട്ടിയില്ല ഡെലിവറി ചെയ്യുന്ന ആളുടെ നമ്പറിൻ്റെ മെസ്സേജ് എൻ്റെ ഫോണിലേക്ക് വന്നിരുന്നു ഞാൻ ആ നമ്പറിൽ അയാളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് അയാളുമായി സംസാരിക്കാനോ ബന്ധപ്പെടുവാനോ സാധിക്കുന്നില്ല എനിക്ക് എത്രയും വേഗം ഇത് ലഭിക്കുമോ കാരണം എനിക്ക് ഇത് എൻ്റെ വീട്ടിൽ രണ്ടു ഗസ്റ്റ് വരുമായിരുന്നു അവരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് നിങ്ങൾ ആ വളരെ കൃത്യമായി ഡെലിവറി ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ ഇപ്പോൾ ഞാൻ ആകപ്പാടെ ഒരു പ്രതിസന്ധിയിലാണ് ഞാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നത് കാരണമൊന്നും പ്രിപേർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എത്രയും വേഗം അവരുമായി ഒന്ന് കോൺടാക്ട് ചെയ്തു എനിക്ക് ഇത് എത്രയും വേഗം ഇതൊന്നു എത്തിച്ചു തരാൻ സാധിക്കുമോ അതല്ല എങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം എനിക്ക് ഈ ഓർഡറ് ക്യാൻസൽ ചെയ്തിട്ട് മറ്റെന്തെങ്കിലും ഒരു മാർഗ്ഗം നോക്കണം ഓക്കേ താങ്ക് യു